ഇരുപത്തെട്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇരുപത് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് പത്തൊമ്പത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്